ഞാൻ നടക്കാറുണ്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട് പക്ഷെ നീന്തലങ്ങനെ ചെയ്യാറില്ല ക്രിക്കറ്റെന്നു പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ചില സമയത്ത് കൂട്ടുകാരുമൊത്ത് പാടത്ത് പോയി കളിക്കുക പിന്നെ മഴയുള്ള സമയത്ത് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിക്കറ്റിൽ കൂടുതലായി ചെയ്യാറുള്ളത് പിന്നെയുള്ളത് പഥയാത്രയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കോളേജിൽ നിന്ന് പോവുക മറ്റുള്ള ക്ലാസ്സിലേക്ക് നടക്കുക പിന്നെ ടൂർ പോകുമ്പോൾ രണ്ടു മൂന്ന് കിലോ മീറ്റർ ഒരുമിച്ചു നടക്കുക അതും പാട്ടുകേട്ട് നടക്കുകയെന്നു പറയുന്നത് വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ് ഇതുമാത്രമല്ല നമുക്ക് വളരെയധികം ആഹ്ളാദിക്കുന്നൊന്ന് കാര്യങ്ങൾ കൂടിയാണ് അതിലുള്ളത് നമുക്ക് നീന്തൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ക്രിക്കറ്റും പഥയാത്രയും തന്നെയാണ് കൂടുതലും ഏർപ്പെടാറുള്ളത് അതുമാത്രമല്ല ക്രിക്കറ്റിലാകുമ്പോൾ നമുക്ക് വളരെയധികം പെട്ടെന്ന് കളിക്കാനും തോന്നും സന്തോഷത്തോടെ കളിക്കാനും തോന്നും പിന്നെ പഥയാത്ര പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കായിട്ടും കൂട്ടമായിട്ടും നടക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ കൂട്ടുകാരോടൊത്തും ഫാമിലിയോടൊത്തും നടക്കുന്നത് വളരെ സന്തോഷമാണ്